സൗരയൂഥത്തിലെ എട്ടു ഗ്രഹങ്ങളും ആ ഗ്രഹങ്ങളുടെ നൂറ്റി അറുപതോളം ഉപഗ്രഹങ്ങളും അഞ്ചു കുള്ളൻ ഗ്രഹങ്ങളും ഉണ്ട് ഇതിനുപുറമേ ഉൽക്കകളും വാൽനക്ഷത്രങ്ങളും സൗരയൂഥത്തിനു പുറത്തുനിന്ന് ഇതുവരെ കണ്ടെത്തിയതിൽ വച്ച് ഏറ്റവും അടുത്തു വാസയോഗ്യമായിട്ടുള്ള ഗ്രഹം യു എസ് എ ആണ് അപ്പോള് ആ മറ്റു ഗ്രഹങ്ങളില് ഭൂമിയെ അപേക്ഷിച്ച് മറ്റു ഗ്രഹങ്ങളില് ബാഹ്യ ജീവനുണ്ടോ എന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബഹിരാകാശ സിദ്ധാന്തത്തില് പറയപ്പെടുന്നത് മറ്റു ഗ്രഹങ്ങളിലെ ഏലിയൻ പോലെയുള്ള ബാഹ്യ ജീവി ഏലിയൻ പോലെയുള്ളവ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ ശാസ്ത്രജ്ഞന്മാരിപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്